ആ ഹലോ ഇത് തോമസാണോ ആ തോമസേ ഞാന് കുറച്ചു നാളായിട്ട് നിന്നെ തിരക്കുകയായിരുന്നു എനിക്കൊരു പ്രോപ്പർട്ടി വേണമായിരുന്നു ചങ്ങനാശ്ശേരി ഭാഗത്ത് നമ്മുടെ വഴികുളത്തിനടുത്തായിട്ട് ഒരു അധികമൊന്നും വേണ്ട ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലം അവിടെ കിട്ടാൻ ചാൻസ് വല്ലതും ഉണ്ടോ കാരണം എനിക്ക് എൻ്റെ എൻ്റെ വലിയ ഇതൊന്നും ഇല്ല വലിയ സ്കോപ്പൊന്നും ഇല്ല അതായത് വില കുറഞ്ഞ ഇച്ചിര വഴിസൗകര്യം വേണം പക്ഷെ വിലക്കുറവ് അല്പം എത്ര സെന്റിന് അവിടെ എങ്ങനെയാണു വില ഓക്കെ എന്നാല് എവിടെയാണ് ഇത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടോ എനിക്ക് പന്ത്രണ്ട് സെന്റാണു വേണ്ടതേ ഞങ്ങള്ക്ക് എന്താ ഇതേ മൂന്നര ലക്ഷം സെന്റിന് അതില്ക്കൂടുതലൊന്നും ഒട്ടും പോവാൻ പറ്റത്തില്ല പന്തീരു മൂന്നു മുപ്പത്താറും മുപ്പത്താറു ആറും നാല്പത്തിരണ്ട് നാല്പത്തിരണ്ട് എല്ലാ ചെലവും ഉൾപ്പെടെ നാല്പത്തിയഞ്ചില് നില്ക്കണം നാല്പത്തി അഞ്ച് ലക്ഷത്തിനു മുകളിലോട്ടേ പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം പ്ലോട്ട് മതി അതിനകത്ത് ഇത് വീട് വേണ്ട എൻ്റെ ആഗ്രഹ ഒരു ചെറിയ വീട് പിന്നെ നമുക്ക് എന്നെങ്കിലും സാമ്പത്തികമായിട്ട് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അന്നൊരു വീടു വയ്ക്കാമെന്നുള്ള പ്ലാാനിലാണ് തല്ക്കാലം പ്ലോട്ട് മേടിക്കാനുള്ള പ്ലാൻ തന്നെ

ആ പിന്നെ അത് ഇപ്പോള് നമുക്ക് ആ സൈറ്റ് ഒന്നു കാണാൻ ഇവിടുന്ന് ഞാന് എപ്പോഴും വീട്ടില് കാണത്തില്ല അന്നേരം എന്റെ വൈകുന്നേരം നാലുമണിക്കുശേഷം ഞാൻ വീട്ടില് ഉണ്ടാകത്തുള്ളൂ അപ്പോഴേ എനിക്ക് നിങ്ങള് പറയുന്ന ലൊക്കേഷൻ നിങ്ങള് വരുകയാണെങ്കില് എനിക്ക് ആ ലൊക്കേഷൻ ഒന്നു കാണിക്കണം എന്നിട്ട് എവിടെയാണെന്നുള്ള ഞാൻ അവിടെ നിങ്ങള് പറയുന്നിടത്തു വരാം വസ്തു ഒന്ന് കാണാൻ വേണ്ടി അപ്പോള് അതിനുള്ള സൗകര്യം രാവിലെ പത്ത് മണിക്കേലും വിളിക്കുകയാണെങ്കില് ഞാൻ വീട്ടിലുണ്ടാകത്തില്ല ഉം അന്നേരം വല്ലതും ആ ആ കേള്ക്കുന്നുണ്ടേ ഓക്കെ പിന്നെ ഒരു കാര്യം വലിയകുളമെന്നു ഞാൻ പറഞ്ഞു എന്നേ ഉള്ളു വലിയകുളത്തു തന്നെ വേണമെന്നില്ല അൽപ്പം അങ്ങോട്ട് മാറി അപ്പുറത്തോട്ടു പോവരുത് പിന്നെ കുരിശുംമൂട് കുരിശുമ്മൂടിനിപ്പറത്തോട്ടും വേണ്ട

ആ ആ ആ പാരപ്പള്ളി ഏരിയയില് കിട്ടുകയാണെങ്കില് വളരെ നല്ല കാര്യം പക്ഷെ ഒരു ഒരു ഫോർ വീലര് പോവാനുള്ള റോഡ് വഴി സൗകര്യം വേണം അതല്ലാതെ ഈ വഴിയില്ലാത്തുടത്തൂടെ നമുക്ക് കൊണ്ട് ഒരു പിന്നെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണു പറഞ്ഞത് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ വീട് വയ്ക്കുകയാണെങ്കില്ത്തന്നെ നമുക്കൊരു ട്രക്കിലൊക്കെ സാധനം കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ വേണം തോമസിൻ്റെ അറിവില് ഇപ്പോള് പ്രോപ്പർട്ടി തോമസിന്റെ അറിവില് ഇപ്പോള് പ്രോപ്പർട്ടി ഉണ്ടോ അങ്ങനത്തെ വല്ലതും ഓക്കെ എന്നാലൊരു കാര്യം ചെയ്യാം ഒരു കാര്യം ചെയ്യാം ആ അതേ ഒരു കാര്യം ചെയ്യൂ എന്റെ ഈ നമ്പറൊന്ന് സേവ് ചെയ്തേക്കെ എന്നിട്ട് ഒന്നു വിളിച്ചുപറയണം കേട്ടോ ശരി ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ താങ്ക്യൂ ആ